ഹലോ ഓ ആരാണ് സംസാരിക്കുന്നത് ആ ഓക്കെ ആ ഓക്കെ ഉണ്ടല്ലോ ആ നമുക്ക് രണ്ടും ഉണ്ട് കേട്ടോ രണ്ടും ഉണ്ട് ആ കൂടുതൽ നമ്മൾ കീടനാശിനി ഒന്നു അധികം അടിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് അല്ലാതെ അല്ലാത്ത പച്ചക്കറികളൊക്കെ നമ്മൾ നല്ല നമുക്ക് തന്നെ വീടുകളിൽ ഉണ്ടാക്കാം ഈ പുകയില ഇട്ട് തിളപ്പിച്ച വെള്ളം ഒക്കെ സ്പ്രേ ചെയ്താലേ ഒരുപാട് ആ അതെ അതൊക്കെ ചെയ്താൽ നമുക്ക് നല്ലതായിരിക്കും ബാർ സോപ്പ് ഇട്ട് തിളപ്പിച്ച വെള്ളം അതൊക്കെ നമ്മൾ സ്പ്രേ ചെയ്താൽ ആ ഓക്കെ അതിൻറെ തൈകളോ തൈകൾ വേണോ ഹലോ അതിൻറെ തൈകളൊക്കെ വേണോ ആ നമ്മൾ കുറച്ച് തൈകളൊക്കെ ഉണ്ട് ഉണ്ട് ആ ആ ഓക്കെ ആ ആ ഹാ ടെറസ്സിന് മുറ്റത്തൊക്കെ വയ്ക്കാനുള്ള നല്ലതാണ് അത് കേട്ടോ നമ്മൾ വലിയ കീടനാശിനികളൊന്നും അടിക്കാത്ത പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഉണ്ടാക്കി എടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരു അടുക്കള തോട്ടമായിട്ടേ അപ്പോൾ സമയം പോലെ ഇറങ്ങിയാൽ മതി നമുക്ക് ഇഷ്ടം ഉള്ള തൈകളൊക്കെ കൊണ്ടുപോകാം കേട്ടോ ആ ഉണ്ട് ഉണ്ട് എല്ലാം ആ ആ ഒരുമാതിരി എല്ലാം ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഓക്കെ ഓക്കെ ഓക്കെ ആ ഹലോ ആ പറഞ്ഞോ ആ അത് ബഡ്ഡിൻറെ ആ ബഡ്ഡിൻറെ ഉണ്ടേ അത് കുറ്റി ആയിട്ട് നിൽക്കുന്നതാണ് മറ്റേ നാടൻ മുരിങ്ങ പോലെ അല്ല കുറ്റി ആയിട്ട് നിൽക്കുന്നത് അത് നമുക്ക് താഴെ നിന്ന് തന്നെ പറിച്ചെടുക്കാം ആ ചാണകം അത് നമ്മൾ ഈ ഗ്രോ ബാഗിനകത്തൊക്കെ വയ്ക്കുന്നതാണേ അപ്പോൾ കുറ്റിച്ച് നിൽക്കും കായ് ഫലം ഒരുപാടുണ്ട് ഒരു കുല ഒത്തിരി ഉണ്ടാവുന്നതാണേ നമുക്ക് ഇത്തിരി എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇത്തിരി ചകിരി ചോറൊക്കെ ഇട്ട് വെച്ചാൽ മതി നന്നായിട്ട് ഉണ്ടായിക്കോളും അതിന് വലിയ കേടൊന്നും വരുന്നതല്ല ആ അതുണ്ട് കേട്ടോ മറ്റേ നമ്മുടെ കടയിൽ കിട്ടുന്ന മുരിങ്ങക്ക പോലെ അത്ര വലുപ്പമില്ല ആ ഉണ്ട് ഉണ്ട് അരികളും ഉണ്ട് അതിൻറെ തൈകളും ഉണ്ടേ ആ ഒരു തൈക്ക് പത്ത് രൂപ വെച്ചാണേ ചെറിയ തൈ ആണല്ലോ ഒരു തൈക്ക് പാക്കറ്റിൽ ആ പാക്കറ്റ് ആയിട്ട് ഉണ്ട് പായ് ഇരുപത് രൂപയാണ് ഒരു പാക്കറ്റിൻറെ വിലയേ ഇരുപത് രൂ എല്ലാത്തിൻറെയും ഉണ്ടേ പാവയ്ക്ക പടവലങ്ങ പയർ പയർ ആണെങ്കിൽ പല രീതിക്ക് കുറ്റി പയർ ഉണ്ട് മറ്റേ നീളം പയറുണ്ട് ഉണ്ട് ആ ഓക്കെ ആ അതെ അങ്ങനെ ആവുമ്പോൾ വല്ല ഈ ഈച്ചകളൊന്നും കുത്താതെ നമുക്ക് അത് സംരക്ഷിക്കാൻ പറ്റും ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഇപ്പം എവിടെയാണ് താമസിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ സമയം പോലെ ഇറങ്ങ് കേട്ടോ ആ ആവശ്യമുള്ള തൈകളൊക്കെ വിത്തുകളൊക്കെ കൊണ്ടുപോവാം കേട്ടോ ഓക്കെ ഓക്കെ വെൽകം